ഒരൂ ഗ്രാമപ്രദേശമാണ് എൻറ്റേത് അവിടെ ഉള്ളതൊരു എ റ്റി എം മാത്രമാണ് എ റ്റി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ വ്യക്തിപരമായി പറഞ്ഞാല് ഞാന് അധികം യൂസെയ്യുന്നില്ല എന്നാൽ ഏതാനും തവണയൊക്കെ ഉപയോഗിച്ച സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും എനിക്കനുഭവപ്പെട്ടിട്ടില്ല പിന്നെ ബാങ്കിങ് കസ്റ്റമർ സർവീസ് അതിനേപ്പറ്റിപ്പറഞ്ഞാലത് പല ബാങ്കുകളുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് സമ്മിശ്രമായൊരു പ്രതികരണമാണ് എനിക്ക് അതേപ്പറ്റി ഉള്ളത് കാരണം ചില സന്ദർഭങ്ങളിൽ ചില ബാങ്കുകളിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആ പ്രവർത്തനങ്ങൾ വലിയ ഒരു താല്പര്യം നമുക്ക് ജനിപ്പിക്കുന്ന രീതിയിൽ കാണാറുണ്ട് പിന്നേ അതേസമയം ചില ബാങ്കുകളിൽ ചെന്നാല് അവരുടെ കസ്റ്റമർ സർവീസെന്ന് പറയുന്നത് വളരെ നമുക്ക് സന്തോഷം ജനിപ്പിക്കുന്നതാണ് കാരണം പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചുതരാനും വലിയ ഗുലുമാലകളൊന്നുമില്ലാതെ അവിടുന്ന് കാര്യങ്ങൾ സാധിച്ചു പോരാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ചില ബാങ്കുകളൊക്കെ പലപ്പോഴും വലിയ നിയമങ്ങളിൽ ഇങ്ങനള്ളിപ്പിടിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങള് നമുക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ടതായത് കൊണ്ട് നമ്മള് ആ ബാങ്കുമായി വീണ്ടും ബന്ധങ്ങള് നിലനിർത്തിപ്പോരുന്നുണ്ട് അതേസമയം ഈ സഹകരണ മേഖലയില് ബാങ്കുകളുടെ പ്രവർത്തനങ്ങള് കുറച്ചൂടെ നല്ലതായിട്ടെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവർക്കൊന്നാമതേ അവിടെയിരിക്കുന്ന ജീവനക്കാർക്ക് ആളുകളെ വ്യക്തിപരമായിട്ടറിയാം അതുകൊണ്ടുതന്നെ ചെല്ലുന്ന ആളുകളുടെ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് സാധിച്ചു കൊടുക്കുന്ന ആ ഒരന്തരീക്ഷം സാധാരണ ബാങ്കുകളിൽ സംജാതവാ അതുപോലെതന്നെ നിയമത് നിയമങ്ങളുണ്ടങ്കിലും ആ നിയമത്തിൻ്റെ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കാതെ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ശൈലി സഹകരണ ബാങ്കുകളിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയില് പ്രവർത്തിക്കുന്ന ഈ ബാങ്കുകള് ഗ്രാമീണ ജനതയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലിടപെടുകയും ഒത്തിരിയേറെ ന നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട് മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകള് അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ അവർക്കൊക്കെ ഭാരിച്ച നിയമങ്ങൾ വിട്ടുവീഴ്ചകളില്ലാത്ത നിയമങ്ങൾ അതുകൊണ്ടുതന്നെ ഒരു കാര്യത്തിന് വേണ്ടി പലതവണ നമുക്ക് പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെയുണ്ട് പ്രത്യേകിച്ച് വലിയ വിട്ടുവീഴ്ചകളവര് കാണിക്കുന്നില്ലെന്നുള്ളതാണ് വസ്തുത അപ്പോഴങ്ങനെയുള്ളൊരു അവസ്ഥാവിശേഷമാണ് ബാങ്കുകളെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്